പഴയ തലമുറക്കാർ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ മത വിശ്വാസികളായിരുന്നു അവർ പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറയും തമ്മില് മതപരമായിട്ടുള്ള കാര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണം പണ്ടൊക്കെ ആയിരുന്നെങ്കില് സന്ധ്യാ സമയം ആകുമ്പോഴത്തേക്കും വീട്ടിലെ സ്ത്രീകള് അമ്മയും അമ്മൂമ്മമാരും ഒക്കെ സന്ധ്യാ സമയത്ത് കുളിച്ച് വിളക്ക് വെച്ച് അവരുടെ ദൈവത്തിനെ പൂജിക്കുകയും നാമം ജപിക്കുകയും വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആയിട്ട് നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു രാവിലെ എണീറ്റ് കുളിച്ചമ്പലത്തില് പോവുകയും സന്ധ്യാ സമയത്ത് അമ്പലത്തിൽ പോയി പ്രാർഥിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോള് അങ്ങനെ കാണാനൊന്നുമില്ല വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തില് പോവുക കുട്ടികളാണങ്കിലും ആ സമയത്ത് വിശേഷ ദിവസങ്ങളിൽ മാത്രം അമ്പലദർശനം നടത്തുകയും മാത്രമേ ചെയ്യുന്നുള്ളു വീട്ടിലിതുപോലെ വിളക്കു വയ്ക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തി പ്രാർഥനയും നാമ ജപമൊന്നും ഇപ്പോള് കാണാറില്ല പിന്നെ പണ്ടത്തെ കാലത്ത് ഒരുപാട് കുറേ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയും അവരുടെ ഉള്ളിലോരോ പേടി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഉദ്ദേശ്യത്തോടെ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളൊക്ക ഉണ്ടായിരുന്നു അത് പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കൊരു നെഗറ്റീവിലോട്ടാണ് വന്നത്